സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ എർപ്പെടുവാനുള്ള അവസരങ്ങൾ വളരെ ഏറെയാണ് അവർക്ക് സ്കൂളുകളിൽ തന്നെ പല പലതരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഓടുവാനുള്ള കഴിവ് ചാടുവാനുള്ള കഴിവ് അങ്ങനെ അങ്ങനെ പലപല കാര്യങ്ങൾ അവർക്ക് സ്കൂള് വഴി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്കൂളുകളിൽ വളരെ അധികം കൂടുതലായിട്ട് വരുന്നു കുട്ടികൾക്ക് പലസ്ഥലങ്ങളിൽ പോയി അവരുടെ കഴിവ് വിൻ ചെയ്യുവാനും കഴിവ് കാണിക്കുവാനും ഒക്കെയായിട്ട് സാധിക്കുന്നു മത്സരങ്ങളിലൂടെ അവർക്ക് അത് ചെയ്യുവാനുള്ള ആഗ്രഹവും ഒരുപാടായി വരുന്നുണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ അധികമായി കാണാനായിട്ട് നമുക്ക് സാധിക്കും കുട്ടികൾക്ക് അവരുടെ ശാരീരികമായുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് അതിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഒരുപാട് മികച്ച മികച്ച കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അവർക്ക് അങ്ങനെ ലോകമറിയപ്പെടുന്ന കുട്ടികളായിട്ട് മാറുവാനും സാധിക്കും കായികം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ അതുവഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ അവർക്ക് കായിക പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുപോകുവാൻ സാധിക്കും പലപല കായിക പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കാറുണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ അവർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്നും മറ്റുള്ളവർ മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിക്കുവാനും ഇവർ ചെയ്യുന്നത് കണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യുവാനും ഒക്കെയായിട്ട് സാധിക്കുന്നു ഇവർക്ക് പിന്തുണയായിട്ട് സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലേക്ക് പോകുവാനും അവർക്ക് വലിയ വലിയ നിലകളിലേക്ക് മുന്നോട്ട് പോകുവാനും അവർക്ക് സാധിക്കുന്നുണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ മറ്റുള്ള കായിക പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വളർത്തുവാനുള്ള ഒരു ഊർജവും കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഊർജ്ജവും സ്കൂളിൽ നിന്ന് അധ്യാപകർ വഴി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അധ്യാപകരും കൂട്ടുകാരും അവരെ ഒരുപാട് ഒരുപാട് മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾ പലപല തരങ്ങളിലേക്കും പല പല പ്രവർത്തികളിലേക്കും പോകുന്നുണ്ട് കുട്ടികൾക്ക് കായികമായി അവർക്ക് അവരുടെ ആരോഗ്യം അതുവഴി ഉണ്ടാകുവാൻ സാധിക്കുന്നു അതേപോലെത്തന്നെ അവർക്ക് നല്ല നല്ല രീതിയിലുള്ള ശാരീരികമായിട്ടും അവർക്ക് നല്ല ഒരു ഊർജ്ജം നൽകുവാൻ കായിക പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് ഷോട്ട്പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളക്കെ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു കായിക പ്രവർത്തികൾ പലതരത്തിലുണ്ട് പല കാര്യങ്ങളുണ്ട് കായിക കായിക പ്രവർത്തി എന്നു പറയുമ്പോൾ ഓട്ടം ചാട്ടം ബാഡ്മിൻറ്റൺ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളതിൽ മുന്നോട്ടുപോകുന്നു സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ അവർ അവർക്ക് അവർ തന്നെ മുന്നിൽ നിന്ന് അവർക്കുള്ള അവസരങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ അവരുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെത്തന്നെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ നിന്നും മറ്റും പുറത്ത് അവർ സ്കൂൾ കഴിഞ്ഞ് മറ്റ് പ്രവർത്തികളിലൂടെ അവർ പുറത്തൊക്കെ പോയി നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് കായിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹങ്ങൾ ഉയർന്നുവരുന്നു അതുപോലെത്തന്നെ മറ്റുള്ളവരുടെ പിന്തുണയിൽ നിന്ന് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നു കൂട്ടുകാരുടെ പിന്തുണ വീട്ടുകാരുടെ പിന്തുണ പുറത്തുള്ളവരുടെ പിന്തുണ ടീച്ചേഴ്സിൻ്റെ പിന്തുണ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് കായിക പ്രവർത്തനങ്ങൾ അവരുടെ ഊർജ്ജം എല്ലാം മുന്നോട്ടുകൊണ്ടു പോകുവാനായിട്ട് സാധിക്കുന്നു സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകർ തന്നെ നല്ല ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്നു അതുപോലെത്തന്നെ അവർക്ക് ഒരുപാട് ഉന്നതങ്ങളിൽ അവർക്ക് എത്തുവാനായിട്ടുള്ള ഏർപ്പാടുകൾ ടീച്ചേഴ്സും അതുപോലെത്തന്നെ മറ്റുള്ളവരും അവർക്ക് നൽകി കൊടുക്കുന്നു സ്കൂളുകളിൽ മാത്രമല്ല അതുപോലെത്തന്നെ പുറത്തും അവരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടുപോകുവാനായിട്ട് സാധിക്കുന്നു